ഇപ്പോള് എന്നെ സംബന്ധിച്ച് കന്നുകാലികളുണ്ടെങ്കിൽ ഒന്നുങ്കിൽ ആട് അല്ലെങ്കിൽ പശു ഏതെങ്കിലുമൊന്നുണ്ടെങ്കിൽ രാവിലെത്തന്നെ ആദ്യം ചെന്നിട്ട് കൂടിന് കൂട്ടില്ക്കയറും കൂട്ടില്ക്കയറുന്നശേഷം എല്ലാത്തിനെയുമൊന്ന് നോക്കി എല്ലാത്തിനെയും അന്നത്തെ ചെന്ന് അടുത്ത് ചെന്ന് തടവിയൊക്കെ എടുത്തതിന് ശേഷം സുഖമാണോ എന്നൊക്കെ എല്ലാം അന്വേഷിക്കും എല്ലാവരുമുണ്ടോ എന്നൊക്കെ നോക്കി എല്ലാവരും എഴുന്നേറ്റോ എന്നൊക്കെ ഒരു എന്താ പറയണെ മക്കളെ നോക്കുന്നപോലെ എല്ലാമൊന്ന് അന്വേഷിച്ച് നോക്കിയെടുത്തതിനുശേഷം കൂട് ഒന്ന് വൃത്തിയാക്കും വൃത്തിയാക്കിയതിനുശേഷം പശു അല്ലെങ്കിൽ ആട് ഇത് കറക്കുന്ന കറവയാണ് ആണെങ്കിൽ അതിനെ പാല് പിഴിഞ്ഞെടുക്കും അതിനുശേഷം അതിന് തിന്നാൻ വേണ്ടി വൈക്കോലോ പിണ്ണാക്കോ അല്ലെങ്കില് എന്തെങ്കിലും തീറ്റകള് കൊടുക്കും തീറ്റകള് കൊടുത്തതിനുശേഷം എല്ലാത്തിനെയും ഒന്ന് നോക്കിയെടുത്തതിനുശേഷം കൊണ്ടു പുറത്ത് ചെന്ന് തീറ്റിക്കാൻ വേണ്ടി കെട്ടും പുല്ലുള്ള സ്ഥലം നോക്കി കെട്ടുമായിരി കെട്ടും അതിന് ശേഷം ഏതെങ്കിലും ഒരു കന്നുകാലിക്ക് ഇപ്പോള് എന്തെങ്കിലും വയ്യാത്തെയാണോ അസുഖമുണ്ടോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം കെയര് കൊടുക്കുന്നതായിരിക്കും അതിനെ അഴിച്ച് വിടാതെ കൂട്ടില്ത്തന്നെ കെട്ടി പ്രത്യേകം പരിചരിക്കുവ പരിചരിക്കും ഡോക്ടറിനെ വിളിക്കേണ്ട വെറ്റിനറി ഡോക്റ്ററെ വിളിക്കേണ്ട സാഹചര്യമാണെങ്കിൽ വെറ്റിനറി ഡോക്ടറെ വിളിച്ച് തന്നെ അതിനെ കാണിക്കുകയും വേണ്ട രീതിയിലുള്ള ചീകിത്സകളും മരുന്നുകളും ഇഞ്ചക്ഷനൊക്കെ എന്തെങ്കിലുമുണ്ടെങ്കില് അത് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം പ്രത്യേക രീതിയിലുള്ള ഭക്ഷണം എന്നുവച്ചാല് അതിന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കും കഞ്ഞിവെള്ളമോ അല്ലെങ്കില് എന്താണ് തീറ്റ അതിന് കൊടുക്കാൻ പറ്റിയത് ആ തീറ്റ കൊടുക്കുന്നതായിരിക്കും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ളതിനെ തോട്ടത്തിലോ അല്ലെങ്കില് പുൽമേടുകൾളൊക്കെച്ചെന്ന് അതിനെ തീറ്റിക്കാൻ വിടും പിന്നെ ഉച്ചയോടെ ആകുമ്പോള് പിന്നെ ഒന്നുങ്കൂടെപ്പോയി ചെന്ന് നോക്കും വയ്യാത്തതെങ്ങനെയുണ്ട് നല്ല രീതിയിലാണോ ഇച്ചിങ്കൂടി ബേറ്ററാണൊ അല്ലെങ്കി എന്തെങ്കിലും മാറ്റമുണ്ടോ അതിനെയൊക്കെ പ്രത്യേകം കെയറെടുത്ത് നോക്കും പിന്നെ മേക്കാൻ വിട്ടതെക്കൊക്കെ എങ്ങനെയുണ്ട് എല്ലാം നില്പുണ്ടോ എല്ലാം ഒരു സ്ഥലത്താണോ നില്ക്കുന്നത് അല്ലെങ്കില് നില്ക്കുന്നിടത്ത് പുല്ലുണ്ടോ ഇതൊക്കെ നോക്കും പുല്ലില്ല എന്ന് കാണുകയാണെങ്കില് അതിനെ ഒന്ന് മാറ്റിക്കെട്ടും പിന്നെ ഇച്ചിരി വെള്ളം കുടിക്കാൻ കൊടുക്കും അല്ലെങ്കില് എന്താന്നുവച്ചാല് കൊടുക്കും അതിനുശേഷം വൈകുന്നേരമാകുമ്പോള് കറവകളെ പോയ ഒന്നങ്കൂടെ കറക്കും കറവ ഉള്ള പശുവാണെങ്കില് അല്ലെങ്കി ഇതിനെ വീണ്ടും തീറ്റിക്കാൻ പുല്ലോ വൈക്കോലോ കൊടുക്കുന്നതായിരിക്കും പിന്നെ ആ വയ്യാത്തതിനെ ഒന്നുങ്കൂടെ പ്രത്യേകം നോക്കും പിന്നെ കുറച്ചൊക്കെ പുറത്തിറക്കേണ്ടി നോക്കും ആ അതിനെ മാത്രം പ്രത്യേകിച്ച് മറ്റ് കന്നുകാലികളെ കൂടെക്കൂട്ടാതെ കാരണം മറ്റുള്ളവർക്കും പടരാതിരിക്കാൻ വേണ്ടി അതിന് പ്രത്യേകം കെയര് കൊടുത്ത് പ്രത്യേക അവരുടെ കൂടെ ഇരുന്ന് അതിങ്ങളെ കുറച്ചൊക്കെ തെറ്റിപ്പിച്ച് തീറ്റ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാം നോക്കും കഴിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തീറ്റകൾ കൊടുക്കുന്നതായിരിക്കും പിന്നെ അതിനെ കുറച്ചുനേരം അതിൻ്റെ കൂടെ നിന്ന് അതിനെ മേച്ചിട്ട് ഒന്നുങ്കിൽ കൂട്ടില് കയറും അല്ലെങ്കില് കൂട്ടിലിരുന്ന് തന്നെ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കൂട്ടില്ത്തന്നെ ഇരുത്തണം എന്നുണ്ടെങ്കില് കൂട്ടില്ത്തന്നെ ഒരു പ്രത്യേക സ്ഥലത്തിരുത്തി അതിനെ തീറ്റിപ്പിച്ചിട്ട് അതിന് പ്രത്യേക വേണ്ട രീതിയിലുള്ള എല്ലാ ക്രമീകരങ്ങളും ചെയ്യുമായിരിക്കും പിന്നതിന് ശേഷം ഇവരെ മേയ്ക്കാൻ വിട്ടതിനെയൊക്കെ ഒന്ന് നോക്കും എല്ലാവരും നില്ക്കുന്നുണ്ടോ എവിടെയാണ് നോക്കിയിട്ട് ഒരു സന്ധ്യയോടെ ആറു മണിക്കുശേഷം അങ്ങനയൊക്കെ പയ്യെ എല്ലാത്തിനെയും ഒന്ന് നോക്കിച്ചെന്ന് കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് ഒന്നുങ്കൂടെ ഒന്ന് എല്ലാം തടവിയിട്ട് തടേലേ സുഖമായിരിക്കുന്നോ വയറ് നിറയെ കഴിച്ചോ എന്നൊക്കെ അന്നേഷിക്കും മക്കളെയൊക്കെ നമ്മളെങ്ങനെ അന്വേഷിക്കും അതുപോലെ പ്രത്യേകം കെയറുകൊടുത്ത് അവരോട് സംസാരിക്കും സംസാരിച്ചിട്ട് അവരോടെല്ലാം അന്വേഷിക്കും എങ്ങനെ ആർക്കെൊക്കെ എന്തെങ്കിലും പറ്റിയോ എല്ലാം പോയ വഴിക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ എന്നൊക്കെ നല്ല രീതിക്ക് നോക്കും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നോക്കും എന്ന രീതിക്ക് തന്നെ വല്ല വന്യജീവികളോ അല്ലെങ്കില് വല്ല എന്തെങ്കിലും വന്നതിനെ ഉപദ്രവിക്കുന്നുണ്ടോ അല്ലെങ്കില് മറ്റേതെങ്കിലും ശല്യമുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെപ്പോയി നോക്കി പ്രത്യേക രീതിക്കുതന്നെ കെയര് കൊടുക്കും അങ്ങനെ സന്ധ്യക്ക് എല്ലാവരെയും കൂട്ടില്ക്കയറ്റിയിട്ട് അവിടെ എല്ലാവർക്കും എല്ലാവരുടെ മുമ്പിലും കുറച്ച് കുറച്ച് വൈക്കോലോ പുല്ലോ എന്തെങ്കിലുമിട്ട് കൊടുത്തിട്ട് എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂടടച്ചിട്ട് തിരികെ വരും